എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് അതിനുള്ള ധൈര്യവും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ബലഹീനത എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി കണ്ണിന് കാഴ്ചക്കുറവുണ്ട് അതുതന്നെയാണ് എൻ്റെ ഏറ്റവും ബലഹീനത എന്ന് പറയുന്നതും കണ്ണിന് കാഴ്ച ലഭിക്കണമെന്നൊരു ആഗ്രഹവുമുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് പിന്നെ

നമ്മുടെ കോൺഫിഡൻസിൻ്റെ നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം എന്നൊക്കെ പറയുന്നത്